ഇവിടെ ഞങ്ങളുടെ നാട്ടിലെന്നു പറയുമ്പോൾ വായനാട്ടിലാണ് ഏറ്റവും നല്ല കൂടുതലും ചെയ്യുന്നത് എല്ലാവരും കൃഷിയാണ് പിന്നെ മൺപാത്രങ്ങളും പിന്നെ നെയ്ത്ത് ശില്പങ്ങളും അവിടെ എവിടെയൊക്കെയോ ഉണ്ട് നമുക്ക് അതിനെ പറ്റിയൊന്നും അത്ര അറിയില്ല പക്ഷെ കൃഷിയാണ് ഏറ്റവും കൂടുതലിവിടെ ഉൽപാദിപ്പിക്കുന്നത് പിന്നെ വിനോദ സഞ്ചാരികളെന്ന് പറയുമ്പോൾ വല്ല റിസോർട്ടുകളിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് പിന്നെ നിന്ന് ഞമ്മള് കൃഷികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നിടത്തെല്ലാം അവര് വന്ന് പറഞ്ഞ് ആ ചോദിച്ച് മനസ്സിലാക്കി അതിനെ പറ്റിയൊക്കെ വിവരിച്ച് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇവിടെ തൊഴിലിനെക്കുറിച്ചെന്ന് പറയുമ്പം തൊഴില് എല്ലാവർക്കും അത്യാവശ്യം എല്ലാവരും നല്ല തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത് കൃഷികളാണ് ഏറ്റവും കൂടുതൽ വാഴക്കൃഷി നെൽക്കൃഷി അങ്ങനെയുള്ള പലതരം കൃഷികളാണ് ഇവിടെ നടക്കുന്നത് ഇഞ്ചിക്കൃഷി പിന്നെ മഞ്ഞൾ അങ്ങനെയുള്ള എല്ലാ തരം ഉണ്ട് മൺപാത്ര നിർമ്മാണം എന്ന് പറയുമ്പോൾ അത് നെയ്ത്ത് നെയ്ത് നിർമ്മാണം ഒക്കെ ഉണ്ടിവിടെ പിന്നെ അത് ഇവിടെ അടുത്തൊന്നുമല്ല ദൂരം വിട്ടിട്ടാണ് ഉള്ളത് പിന്നേ ഒരേ ശില്പങ്ങളുണ്ടാക്കുന്നത് ഇവിടെയല്ല നാട്ടിൽ നാടുകളിലാണ് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ ശില്പങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കുന്ന അത്യാവശ്യം ചില ആൾക്കാരൊക്കെ ശിൽപങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പലതരത്തിലുള്ള കൊത്തുപണികളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ പലതും ചെയ്യുന്നുണ്ട് ഇവിടെ കൂടുതലും കൃഷിയാണ് ചെയ്യുന്നത്